പെയിൻറിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ശേഖരിക്കാൻ ഒരു പ്രയാസവുമില്ല ഇപ്പോൾ ഓൺലൈൻ കാര്യങ്ങൾ ആയിട്ട് അവൈലബിൾ ആണ് പിന്നെ ഗവേഷണം നടത്താൻ ആണെങ്കിലാച്ചാൽ പല പല സൈറ്റുകളിലും പെയിന്റിങ്ങിന് പറ്റിയും എല്ലാ ഇതിനെപ്പറ്റിയും ഓരോ ആപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഗവേഷണം നടത്താനും ഒരു ബുദ്ധിമുട്ടും ഈ കാലത്ത് ഇല്ല പിന്നെ പെയിന്റിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ പല തരം ഇലകൾ ഉപയോഗിച്ചും പിന്നെ പല പല എന്താ പറയുക ചെടികളുടെയും പല മരത്തിൻ്റെ തൊലികളും അങ്ങനത്തതൊക്കെ ഉപയോഗിച്ചിട്ടും പിന്നെ പെയിൻറിംങ് പെയിന്റിങ്ങിന് നടത്താൻ പറ്റിയ കളർ കളറുകൾ ഉണ്ടാക്കാൻ ഒക്കെ പറ്റും പിന്നെ ആവശ്യമായ വസ്തുക്കൾ ഇങ്ങനെ ഓൺലൈനിലൂടെയും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്യാമല്ലോ ഓൺലൈൻ ഭാഗങ്ങളിൽ ഇഷ്ടം പോലെ സാധനങ്ങളും കിട്ടുന്നതാണ് പിന്നെ ഗവേഷണം നടത്താൻ ആണെങ്കിലും അങ്ങനെ തന്നെ പെയിൻറിംഗ്സ് എന്ന് പറഞ്ഞാൽ ആപ്പ് തന്നെ പ്രത്യേക ആയിട്ടുണ്ട് അതിൽ കൂടി നമുക്ക് എല്ലാ വിവരങ്ങളും ഇപ്പം കിട്ടും